എന്താ പറയുക ഇപ്പോൾ അങ്ങനെ പ്രേക്ഷകരെയൊക്കെ നമ്മൾ അങ്ങനെ ആകർഷിക്കുന്ന തരത്തിലുള്ള നൃത്ത നൃത്തോത്സവം എന്നൊക്കെ പറയാനാണെങ്കിൽ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ എന്താ പറയുക തിരുവാതിര പിന്നെ നാടോടി നൃത്തം പിന്നെ എന്താ പറയുക കഥകളി അങ്ങനത്തെ നൃത്ത രൂപങ്ങളൊക്കെയാണ് ആളുകൾക്കിപ്പോൾ എന്താ പറയുക പൊതുവേ കാണാൻ താല്പര്യമുള്ളത് ക്ലാസിക്കൽ ടൈപ്പ് ഡാൻസുകളൊക്കെയാണ് കൂടുതൽ ആൾക്കാരും എന്താ പറയുക കാണാനൊക്കെ കൂടുതലായിട്ട് ശ്രമിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഇന്നത്തെ കാലത്ത് ഈ വിഷു എന്നൊക്കെ പറയുമ്പോൾ എന്താ സാധാരണ വിഷുവിന് ഒക്കെയെന്നു പറയുമ്പോൾ എന്താ പറയുക അങ്ങനെ ഡാൻസിനോടൊന്നും അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ് ഉള്ള ടൈപ്പ് അല്ല പിന്നെ എന്താ പറയുക ക്രിസ്മസിനെന്നു പറയുമ്പോഴും നമ്മൾ ഡാൻസ് നൃത്തങ്ങളോടൊന്നും അങ്ങനെ സാമ്യം വരുന്നൊരു സംഭവങ്ങളല്ല ഈ ടൈമിലൊന്നും വരുന്നത് എന്നാൽ തന്നെ വിഷുവിനൊക്കെയെന്നു പറയുമ്പോൾ പൂവ് പാട്ടെന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യമാണ് വിഷുവിനൊക്കെ പാട്ട് പാട്ട് പാടുന്നത് എന്താ പറയുക നല്ല ഗാനാലാപനങ്ങൾക്ക് ഒക്കെയാണ് ഇത് ഇത് പിന്നെ ക്രിസ്മസിൻ്റെ സമയത്ത് എന്നു പറയുമ്പോൾ എന്താ പറയുക